ആ അവിടുന്ന് ഞാൻ കുറച്ചു മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഫുഡ് ഐറ്റംസ് ആ അതായത് എൻ്റെ പേര് ഷെഹിൻ ആ അതെ അതെ അതെ പുൽപള്ളി അമരക്കുനിയിലാണ് വീട് ആ അവിടേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത് പക്ഷെ സംഭവം എന്ന് വച്ചുകഴിഞ്ഞാല് അവിടുന്ന് വിട്ടോ അവര് ഇല്ല അല്ലെ പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ആ ഓക്കേ അങ്ങനെയാണെങ്കില് ആ അഡ്രസ്സ് ഒന്ന് മാറ്റാൻ വേണ്ടിട്ടായിരുന്നു കാരണം അവിടെ ഞാന് നേരത്തെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ വിളിച്ചത് അപ്പോൾ കുറച്ചു സമയം ആയായിരുന്നല്ലോ അപ്പോൾ ഞാൻ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്നു അപ്പം നിങ്ങളിനി അവിടേക്ക് കൊണ്ടുവന്നാൽ മതി ആ ചെറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് അഡ്രസ്സ് ഒന്ന് നോട്ട് ചെയ്തോളു ചെറ്റപാലത്ത് നിന്ന് രണ്ടാമത്തെ വീട് കഴിഞ്ഞിട്ട് അതായത് വലത് സൈഡിലുള്ള രണ്ടാമത്തെ വീട് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീട് ചെറ്റപ്പാലം ടൗണിൽ നിന്ന് തന്നെ ടൗണിൻ്റെ കുറച്ച് അപ്പുറത്ത് തൊട്ടപ്പുറത്താണ് വീട് ഒരു ഒരു ആദ്യം ഒരു വീട് അതിൻ്റെ അപ്പുറത്ത് വീട് അതിൻ്റെ അപ്പുറത്ത് മൂന്നാമത്തെ വീട്ടില് ആ ഓക്കെ ഓക്കെ ആ അവിടേയ്ക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി ഓക്കേ എന്നാല്